ഓ ആ അത് ഞാൻ എനിക്കാണ് മൊബൈല് ഓട്ര് ചെയ്തിരുന്നു അതെയതെയതെ

ഉച്ചകഴിയുമോ ഉച്ചകഴിഞ്ഞ് എത്രമണിയാവും

അതെയതെയതെ അല്ലാ ഇത് ക്യാഷ് ക്യാഷായിട്ടേ തരാന് പറ്റത്തുളളൂ അല്ലല്ല എളുപ്പമല്ല ഞാന് ക്യാഷല്ലേ തരാമെന്ന് പറഞ്ഞത് ഇപ്പം എളുപ്പം നോക്കാൻ പറ്റില്ലല്ലോ അല്ലല്ല ഇല്ലില്ല അത് പറ്റത്തില്ല ക്യാഷായിട്ടേ തരാന് പറ്റത്തുളളൂ അതെയതെയതെ

അതെ ആ അല്ല അപ്പം പിന്നെ ഒരു അപ്പം പിന്നെ ഒരു ഡെലിവറി ക്യാഷായിട്ടായിക്കോട്ട് ആ എങ്കിൽ ശരിയാ പക്ഷെ എന്റെ ഇപ്പോൾ ക്യാഷായിട്ടേ തരാന് പറ്റുന്നുളളൂ അതുകൊണ്ടാ ഞാന് പറഞ്ഞത് അല്ലല്ല അതെയതെയതെ ക്യാഷായിട്ടാണ് വെച്ചിട്ടുള്ളത് ഇല്ലില്ല വേറെയൊന്നും ഇപ്പോൾ ഓട്രർ ചെയ്തിട്ടില്ല മൊബൈല് മാത്രമേ ഓട്രർ ചെയ്തിട്ടുണ്ടായിരുന്നുളളൂ

അതെയതെയതെ ക്യാഷായിട്ടാണ് ഇരിക്കുന്നത് അതെ ഓക്കെ ഓക്കെ അതെ ആ ശരി ശരി ഓക്കെ ഓ ഓക്കെ ഓക്കെ താങ്ക് യൂ താങ്ക് യൂ